ഇപ്പോൾ ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ച്ച വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൈമാണ് ഇപ്പം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം സാങ്കേതികവിദ്യ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലാത്ത സ്ഥലങ്ങള് എവിടെയും ഇല്ല അപ്പം നമുക്ക് കൂടുതലായിട്ടും അതായത് സാങ്കേതികവിദ്യ വേണ്ടിയിട്ട് അപ്പം അതായത് സാങ്കേതികവിദ്യ എന്നൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടറ് മൊബൈൽ ഫോണ് ഇൻ്റർനെറ്റ് ലാപ്ടോപ്പ് എല്ലാ ഇപ്പം നമ്മുടെ വിരൽ തുമ്പിലുണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എല്ലായിടത്തും നെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഞൊടിയിടയില് എന്ത് കാര്യം അനേഷിക്കണമെങ്കിലും നമുക്ക് നെറ്റില് സെർച്ച് ചെയ്താൽ മതി നമുക്ക് എന്ത് കാര്യം നമുക്ക് കിട്ടുന്നതാണ് അപ്പം സാങ്കേതികവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും പോകേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഈ സർവ്വകലാശാല അങ്ങനത്തെ ഏരിയസിലക്കെയാണ് അപ്പം അവിടെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനും പറ്റും ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് നല്ല രീതിയില് കിട്ടും ആ അപ്പം ആ ഓരോ കോഴ്സ് പഠിക്കുന്നതിനു അനുസരിച്ച് അയിന് അനുസരിച്ചുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് നേടാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം എല്ലാവരും മികച്ച ഒരു എന്താ പറയുക കോളേജുകളും സർവ്വകലാശാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഐ ഐ ടി പിന്നെ ഐ ഐ ടി മദ്രാസ് പിന്നെ കാലിക്കറ്റ് സർവ്വകലാശാല പിന്നെ കണ്ണൂർ സർവ്വകലാശാല പിന്നെ എം ജി യൂണിവേഴ്സിറ്റി അങ്ങനത്തെ കുറേ സർവ്വകലാശാലകൾ ഉണ്ട്